ഇപ്പം കുട്ടിക്കാലത്ത് കളിക്കുന്ന കളികളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും സാറ്റ് പിള്ളേർ എന്താ പറയാ കുറെ പിള്ളേർ ഉണ്ടാകും അപ്പം അവരായിട്ട് സാറ്റ് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ കളിക്കുമ്പൊന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ അക്ക് കളിക്കും പിന്നെ കൊത്തങ്കല്ലെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കളിക്കും പിന്നെ ഗോട്ടി ഇതൊക്കെയാണ് പഴയ എന്താ പഴയ രീതിയിലുള്ള കളികൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല നല്ല രസമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ കളികളൊന്നും എന്താന്നും കൂടെ അറിയില്ല അവരൊക്കെ മൊബൈലിൽ നോക്കിട്ടാണ് മൊബൈലിൽ ഗെയിംമ് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കക്കാണ് ഇവർക്ക് താൽപ്പര്യം പഴയതൊക്കെ നല്ല രസമാണ് നമ്മളിപ്പോൾ എല്ലാവരുമായിട്ട് പിന്നെ എന്താ പറയാ പിള്ളേരും എല്ലാ കാര്യങ്ങൾ എന്താ പറയാ എല്ലവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് കളിക്കുന്ന കളികളൊക്കെയാണത് അപ്പം പിന്നെ ക്രിക്കറ്റ് ഫുട് ബോള് ഇതൊക്കെ പിന്നെ ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ മെയ്നായിട്ട് ഇപ്പോഴും എല്ലാവരും കളിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ ഇപ്പം എന്താ പറയാ ഇറങ്ങീട്ട് കളിക്കണന്നൊന്നൂമില്ല അപ്പം പണ്ടത്തെ പിള്ളേര്ന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി കളിക്കുന്ന പിള്ളേരാണ് അപ്പം ഇതൊക്കെയാണ് മെയ്നായിട്ട് കളിക്കുന്ന കളികൾ